ഞാനൊക്കെ ഇങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ എന്താ പറയുക അഭിമുഖീകരിക്കാനുള്ള ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മളിങ്ങനെ സൈക്കിളിലൊക്കെ പോവുമ്പം ഇപ്പോൾ റോഡുകളിലൊക്കെയാണെങ്കിൽ വേറെ വണ്ടികൾ വരുന്നുണ്ടോ ശ്രദ്ധിക്കണം വണ്ടികൾ പോവുന്നുണ്ടോ വരുന്നുണ്ടോ നമ്മുടെ സൈഡിൽക്കൂടിയൊക്കെയാണോ എന്നൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ പരമാവധി ശ്രദ്ധിച്ചു വേണം പോവാൻ അപ്പം നമ്മളെന്താക്കണം പരമാവധി ശ്രദ്ധിച്ചും കാര്യങ്ങളൊക്കെ പോവും പിന്നെ ഞാൻ എങ്ങനെയായിരുന്നുവെച്ചാൽ നമ്മുടെ തോടുകളുടെ സൈഡ് വരമ്പുകളുടെ സൈഡ് വയലിൻ്റെ സൈഡില് അതിലെയൊക്കെയാണ് ഞങ്ങൾ ടൗണിലേക്ക് പൊയ്ക്കോണ്ടിരിക്കുക കാരണമെന്താണെന്നുവെച്ചാൽ എപ്പോഴും നമുക്ക് വണ്ടീടെ പോക്കും വരവൊക്കെ ശ്രദ്ധിക്കണം പിന്നെ ആൾക്കാരൊന്നുമില്ലാത്ത ഇനി ബ്രേക്കില്ലാത്ത സൈക്കിളൊക്കെയായിരിക്കും അപ്പോൾ ആരെയും പോയി ഇടിക്കാണ്ടും ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞൊക്കെ പോവും അപ്പം അങ്ങനെയൊക്കെ പോവുമ്പം എന്താ പറയുക ചിലസമയത്ത് ഒരുപാട് കാഴ്ച്ചകളൊക്കെ കാണാൻ പറ്റും മീനും തവളയും ഒക്കെ കാണാൻ പറ്റും ഞണ്ടും പിന്നെ റോട്ടിൽക്കൂടെയാവുമ്പോൾ നമ്മൾ വണ്ടി പോവുന്നതും വരുന്നതുമെല്ലാം ശ്രദ്ധിക്കണം പിന്നെ തോട്ടിൽക്കൂടെയൊക്കെയാണ് ഞങ്ങൾ ടൗണിൽ പോയ്ക്കൊണ്ടിരുന്നത് സൈക്കിളുമെടുത്തിട്ട്